ആ അതെ അതെ പറഞ്ഞോളു ആ ആ നിങ്ങൾ കുറെ മുമ്പായൊ കുറെ എത്രായി പെയിൻറ്റടിച്ചിട്ട് പു അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലായല്ലെ ഓക്കെ ആ ആ നിങ്ങൾക്ക് ഏത് കമ്പനീടെ പെയിൻറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ബിർളാ വൈറ്റ് നമുക്ക് ഏഷ്യൻ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റത് നല്ലൊരു ഇത് വരുന്ന ഓഫറൊക്കൊള്ള ഒരു സംഭവം വരുന്നുണ്ട് അപ്പോൾ അത് നോക്കാന്ന് വെച്ചിട്ട് ആ ഇപ്പമെന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററിന് പല ലിറ്ററിലാണ് നിങ്ങളേത് കളറെങ്ങനെയാണ് വേണ്ടത് പെയിൻറ്റിൻ്റെ കളറെന്താണ് മഞ്ഞ ക്കളറ് അതൊരു അപ്പോൾ അകത്തും പുറത്തും വ്യത്യസ്തമായിട്ട് വേണ്ടത് ആ പോർ അപ്പം അ പുറത്തേതാണ് വേണ്ടത് ചാ ചായം കാണുവൊ ആ ആ ആ ആ ആ കറുപ്പ് ആ ആ അങ്ങനെയാണെങ്കിൽ ഒരു പെയിൻറ്റിന് പതിനായിരം ഒക്കെയാണ് വരുന്നത് അതിൽ വലിയ വിലയായിരിക്കും ആ പിന്നെ ഓഫറ് വരുമ്പോൾ ഓഫറ് അപ്പം ആ പതിനാലായിരമാണ് അപ്പോൾ ഇങ്ങനെ ഈ ഇതിൽ ഓഫറ് വെച്ചിട്ട് പന്ത്രണ്ട് പ പത്ത് തൊട്ട് പതിനായിരത്ത് വെച്ച് വരുന്ന ആ ആ പിന്നെ പീലില് പിന്നത്തിൽ ഓ പിന്നതിൽ ഏഷ്യൻ പെയിൻറ്റ്സാണ് പിന്നൊരു ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ വെച്ചിട്ട് പെയിൻറ്റടിക്കുന്ന പരിപാടിയുണ്ട് ആ അന്നാലിങ്ങനെ തട് ത്ത ദിവസം എടുക്കൂല അതായത് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കുവെം ചെയ്യും ആ അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ആ ആ ഒരു ഒരാഴിച്ചേൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഫുള്ള് അകോവും പുറവും ഒക്കായിട്ട് ഒരാഴിച്ചേൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ തീരുന്ന രീതിയിലാണ് ആ ആ അപ്പോൾ അതെങ്ങനെ എത്ര ലിറ്ററാന്ന് നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ വീടിൻ്റെ നിങ്ങൾ പോയെന്ന് ഈ കടേക്ക് വരാണെങ്കിൽ നമുക്കത് നോക്കാം ആ ഓക്കെ ഓക്കെ നിങ്ങൾ ഒരു ഒരു രണ്ട് മൂന്നാളുകളുണ്ടാവുള്ളു പിന്നെ ഈ മെഷിൻ കരണ്ട് വെച്ചിട്ടാണ് കരണ്ട് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നിട്ട് മെഷിൻ വെച്ചിട്ടാണ് ചെയ്യുക ആ ആ നിങ്ങളെന്നാൽ കടേക്ക് വന്നോളു കടേക്ക് വന്നോളു നമുക്ക് സു കളറൊക്കെ സെലക്റ്റ് ചെയ്യാം ആ ആ ഓക്കെ ഓക്കെ ശരി ആ